ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകം പ്രദേശത്ത് താമസിക്കുന്നു ഞങ്ങളുടെ പ്രദേശത്തെ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എം ബി ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീമതി ധന്യ സാബു ആണ് എനിക്ക് ഇവർ മൂന്ന് പേരെയും അറിയാം എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ഏറെ വർഷങ്ങളായി പതിനഞ്ച് വർഷങ്ങളോളമായി സ്ഥലത്തെ എം എൽ എ ആണ് അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നു ആൾക്കാരോടൊക്കെ ഏറെ സൗഹൃദപരമായും സമാധാനപരമായും ഇടപെടുന്ന ഒരു എം എൽ എ ആണ് അദ്ദേഹം ഏത് ആവശ്യങ്ങൾക്കും എം എൽ എയെ സമീപിച്ചാൾ ഒരിക്കലും നമ്മളെ തഴയാറോ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കുക ചെയ്യാറോ ഇല്ല വ്യക്തിഗതമായ വ്യക്തിപരമായി അദ്ദേഹം അതിനകത്ത് ഇടപെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാറുണ്ട് തന്നെ സമീപിക്കുന്നവർക്കെല്ലാം ആശ്വാസം നൽകുന്നതിൽ വളരെ മിടുക്കാനാണ് അദ്ദേഹം ജില്ലയിലെ തന്നെ ഏതു വികസന പ്രവർത്തനങ്ങളിലും ഏറെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എം എൽ എ എന്നു പറയാം ഏത് ഉൽഘാടന ചടങ്ങുകളിലോ മറ്റേ എന്ത് ചടങ്ങുകളിലാണെങ്കിലും വരാമെന്നേറ്റാൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്ന ഒരു എം എൽ എ ആണ് ഞങ്ങൾക്കുള്ളത് സഹായങ്ങളുമായി തന്നെ സമീപിക്കുന്നവരെ അദ്ദേഹം ഒരിക്കലും നിരാശരാക്കുന്നില്ല സ്കൂളുകളും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കുന്നു സ്കൂളുകൾക്ക് ധനസഹായം ചെയ്യുന്നതിലും ലാപ്ടോപ്പ് മറ്റു ഉപകരണങ്ങൾ എന്നിവ സൗജന്യമായും നൽകുന്നതിലും തൻ്റെ ഫണ്ടിൽ നിന്ന് സൗജന്യമായി നൽകുന്നതിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ താല്പര്യം കാണിക്കുന്നു പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഇടുക്കി ജില്ലക്കാരനാണ് കോട്ടയം ജില്ലയിൽ വന്ന് മത്സരിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം നല്ല ഒരു എം ബിയാണ് എന്നുതന്നെ പറയാൻ സാധിക്കും നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളുടെ പക്കലേക്ക് എത്തിക്കുക എന്ന തൻ്റെ ദൗത്യം ഏറ്റവും ആത്മാർത്ഥമായും നിർവഹിക്കുന്ന ആൾ തന്നെയാണ് തൻ്റെ പദവിയുടേയോ തൻ്റെ അധികാരത്തിൻ്റേയോ ഒന്നും ജാഡയില്ലാതെ മനുഷ്യരിലേക്ക് ഇറങ്ങിവന്ന് പ്രവർത്തിക്കുന്ന ഒരു എം ബി എന്നുതന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും വിദ്യാഭ്യാസപരം എം എൽ എയെക്കുറിച്ച് പറഞ്ഞതുപോലെതന്നെ വിദ്യാഭ്യാസപരമായ മറ്റ് ഏതു കാര്യങ്ങളിലും അദ്ദേഹം വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു അതുപോലെ ഏതു ദുഃഖകരമായ അവസ്ഥയുള്ള ഭവനങ്ങളിലും വന്നെത്തുന്നതിൽ ഈ എം ബിയും ഈ എം എൽ എയും സമയം കണ്ടെത്തുന്നു എന്നുതന്നെ പറയാം ഉദാഹരണമായിട്ട് ഒരു അപകട സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു മരിച്ച വീടുകളോ വീടുകളിലോ ഒക്കെ തൻ്റെ അനുയായികളോടൊപ്പം കടന്നു ചെല്ലുന്നതിൽ ഒരു മടിയും അവർ കാണിക്കുന്നില്ല ജനങ്ങളെല്ലാം ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എം ബിയും പിന്നെ നമ്മുടെ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നു പറയുന്നത് ശ്രീമതി ധന്യ സാബുവാണ് ഒരു വനിത എന്ന നിലയിൽ ഒരു വനിത പ്രസിഡൻ്റ് എന്ന നിലയിൽ കുമരകം പഞ്ചായത്തിലെ വനിതകൾക്ക് ഒരു വലിയ സപ്പോർട്ട് അവർ നൽകുന്നുണ്ട് കുമരകം പഞ്ചായത്തിലെ ഏത് ഇടുങ്ങിയ വഴികളിൽ കൂടിയും ഉൾനഗരങ്ങളിലും തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻവേണ്ടി ഈ പ്രസിഡൻ്റ് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് വാർഡിലെ എല്ലാ മെമ്പറുമാരുമായിട്ടും നല്ല ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് വളരെ മിടുക്കിയാണ് എന്നുവേണം പറയുവാന് നമ്മുടെ പഞ്ചായത്തിലെ അനേകം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനുശേഷം ഇവർ ചെയ്തിട്ടുണ്ട് വാർഡുകൾ തോറും കയറി ഇറങ്ങി വീടുകൾ സന്ദർശിക്കുന്നതിലും സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് സമയം കണ്ടെത്തുന്നു വളരെ വ്യക്തിപരമായിട്ടുതന്നെ സമീപിക്കുന്നവർക്ക് സാമ്പത്തികവുമായിട്ടുള്ള എന്തു സഹായവും പഞ്ചായത്ത് പ്രസിഡൻ്റ് സാധിച്ചു കൊടുക്കുന്നുണ്ട് തൊഴിലുറുപ്പ് പദ്ധതിക്കാരെ ഈ അടുത്ത ദിവസം അവർ അവിടെ എന്തോ ആവശ്യങ്ങൾ അവരെ അറിയിച്ചപ്പോൾ ഉടനടി അത് ചെയ്തു നൽകിയതായി അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊടുത്തതായി ഇന്ന് രാവിലെകൂടി കുറച്ച് തൊഴിലുറപ്പ് അംഗങ്ങൾ ഞാനുമായി അത് പങ്കു വയ്ക്കുകയുണ്ടായി